ഹലോ ആരാണ് ഓക്കെ ആ ഗുഡ് മോർണിംഗ് രോഹിത്ത് ഓക്കെ ഓക്കെ അപ്പോൾ എക്സാം എല്ലാം നല്ല എളുപ്പം ആയിരുന്നു അല്ലേ ഓക്കെ ഓക്കെ നല്ല കാര്യം നല്ല കാര്യം ഓൾ ദ ബെസ്റ്റ് അപ്പോൾ ഇപ്പോൾ എന്താ വിളിച്ചത് രോഹിത്ത് ആ നൈസ് ഓക്കെ അവിടെ ഒരുപാട് നല്ല പ്രൊഫഷണൽ കോഴ്സ് ഉണ്ട് ഏത് എല്ലാ കോഴ്സും അവിടെ ഏകദേശം എല്ലാ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏത് കോഴ്സാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് നീ ആ ഓക്കെ അപ്പോൾ സയൻസ് സബ്ജെക്ടിൽ ആ അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെന്നു പറയുമ്പോൾ സയൻസ് സബ്ജെക്ടിൽ ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി സുവോളജി ആ പിന്നെ ജിയോളജിയും ഉണ്ട് ഇപ്പം നിനക്ക് ഏതെങ്കിലും സബ്ജെക്ടിൽ ഇൻ്ററസ്റ്റ് ഉണ്ടോ ഓ ഓക്കെ ഓക്കെ ആ സാരമില്ല ഞാൻ പറഞ്ഞു തരാം ഇപ്പം ജിയോളജി നല്ല ഒരു സബ്ജെക്ടാണ് കേട്ടോ അത് ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണ് ഇപ്പം ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പ്രത്യേകിച്ച് പി ജി ഒക്കെ ചെയ്തിട്ട് പി ജി കമ്പ്ലീറ്റ് ചെയ്തതിനു ശേഷം നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഉണ്ട് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണ് ജിയോളജി എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് നിനക്ക് ടീച്ചിംഗ് പ്രൊഫഷൻ അതായത് ഒരു പ്രൊഫസർ ഒക്കെ ആകണമെങ്കിൽ നിനക്ക് ഇപ്പോൾ ഇത് ഇപ്പം ആദ്യം ബി എസ് സി ചെയ്തിട്ട് പിന്നെ എം എസ് സി അത് കഴിഞ്ഞിട്ട് പിന്നെ നെറ്റ് എക്സാം ഉണ്ട് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് അത് എഴുതണം അത് എഴുതിയിട്ട് പാസ്സ് ആയി പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തോ അല്ലെങ്കിൽ നിനക്ക് പി എച്ച് ഡി അങ്ങനെയും നോക്കാം അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനീസും ഉണ്ട് പിന്നെ സെൻട്രൽ ഗവൺമെൻ്റ് ഒ എൻ ജി സി അവിടെ ഉണ്ട് ജോലി കിട്ടും പിന്നെ ജി എസ് ഐയിൽ ഉണ്ട് ജി എസ് ഐ ഉണ്ട് പിന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ പി എസ് സി വഴിയും ജിയോളജി ഡിപ്പാർട്ട്മെൻ്റിലോട്ട് എക്സാംസ് വിളിക്കുന്നുണ്ട് അവർ പറയും അപ്പോൾ ആ എക്സാംസ് എഴുതിയിട്ട് നിനക്ക് അവിടെയും ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഡിഗ്രിക്ക് തന്നെ നിങ്ങൾ ഒരു പാർട്ട് ആയിട്ട് റിമോട്ട് സെൻസിംഗ് ജിസ്സിൻ്റെ കോഴ്സും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോവും ആ അപ്പോൾ ആ അത് നിനക്ക് വീണ്ടും പഠിക്കണമെങ്കിൽ പി ജി കഴിഞ്ഞിട്ട് ജിസ്സും റിമോട്ട് സെൻസിംഗെന്നും പറഞ്ഞിട്ട് ഒരു ഫീൽഡ് ഉണ്ട് എഴുതി വച്ചോണേ അത് അപ്പോൾ അത് ആ അതിലോട്ട് വേണമെങ്കിൽ ഒരുപാട് കമ്പനീസ് ഉണ്ട് പ്രൈവറ്റ് ആയിട്ടും ഒക്കെ ഉള്ളത് അത് നല്ല സാലറി കിട്ടും അപ്പോൾ ഈ ജിസ്സിൻ്റെ റിമോട്ട് സെൻസിംഗിൻ്റെ കോഴ്സ് കമ്പ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അതും ആയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ജോബുകൾ പെട്ടെന്ന് തന്നെ കിട്ടും ആ പിന്നെ ഈ പറഞ്ഞ പോലെ ജി എസ് ഐയിലുണ്ട് പിന്നെ നിനക്ക് പുറത്ത് പോകുവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പുറം രാജ്യങ്ങളിലും ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ജിയോളജി വൈസിൽ ഒരുപാട് നല്ല സ്കോപ്പ് തന്നെ എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ കുറച്ച് പേര് പുറത്ത് ഉണ്ട് ജിയോളജി പഠിച്ചിട്ട് അവർ ആ പുറത്ത് ആണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് അവിടെ തന്നെ സെറ്റിലും ആണ് അപ്പം പുറത്ത് പോകണമെങ്കിലും നല്ല ഒരു ജിയോളജി കോഴ്സ് പഠിച്ചിട്ട് പോവുന്നെങ്കിൽ അവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെ ആണ് അവിടെ പി എച്ച് ഡി വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ ഒക്കെ ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടും ജിയോളജി തന്നെയാണ് നല്ലത് എനിക്കും ജിയോളജിയോട് ഇഷ്ടം ആണ് ആ സബ്ജെക്ട് പൊതുവെ നല്ലത് ആണ് പിന്നെ ഇവിടെ ആ ആ കോളേജ് യൂണിവേഴ്സിറ്റി തന്നെ ഉള്ള കുറച്ച് കുട്ടികളൊക്കെ ഇപ്പോൾ ജോലി ഒക്കെ കിട്ടിയിട്ടുണ്ട് പാസ്സൗട്ട് ആയവർ അവർക്കൊക്കെ ജോലിയും കിട്ടിയിട്ടുണ്ട് ജിയോളജി പഠിച്ച് ഇറങ്ങിയിട്ട് നല്ല നല്ല നല്ല കോഴ്സ് ആണ് നല്ല സബ്ജെക്ട് ആണ് ചൂസ് ചെയ്തത് ആ ഓക്കെ ഓക്കേ ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ പ്ലസ്ടു അപ്പോൾ അത് റിസൾട്ട് അനൗൺസ് ചെയ്തതിനു ശേഷം അവിടെ പോയാൽ മതി അപ്പം യൂണിവേഴ്സിറ്റിയിൽ അവിടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അവിടെ ഇട്ടിരുന്നാൽ മതി ഓക്കെ അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു റിസൾട്ട് മാർക്ക് എത്രയാണ് അങ്ങനെ ഉള്ളതൊക്കെ ആ ഒരു ഫോമിൽ ഫില്ല് ചെയ്യുക എന്നിട്ട് അവിടെ ഇടുക അപ്പോൾ അവർ മെറിറ്റ് അനുസരിച്ചിട്ട് അവർ സീറ്റ് നൽകും അതുപോലെ തന്നെ മാനേജ്മെൻ്റ് സീറ്റും അവൈലബിൾ ആണ് ആ ഓക്കെ രോഹിത്ത്